നമ്മുടെ ഗ്രാമങ്ങളിൽ വൈദ്യുതി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അനേകമാണ് കാരണം വൈദ്യുതി ഇല്ലാതെ നമ്മുടെ ഒരു വീടുകളും അല്ലങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നു വൈദ്യുതി ഉല്പാദന വൈദ്യുതി വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നതിലൂടെ നമ്മടെ വീടുകളിലെ ട്യൂബ് ലൈറ്റും ഫാനും കമ്പ്യൂട്ടറും ഇൻവേട്ടറും നമുക്ക് ആവശ്യമായ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ മിക്സി ഫ്രിഡ്ജ് തുടങ്ങിയ കാര്യങ്ങൾ പോലും പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് വൈദ്യുതിയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഗ്രാമത്തിൽ കൃഷിയിൽ വൈദ്യുതി ഉപയോഗിക്കുക എന്ന കാര്യങ്ങൾ ഒട്ടനവധിയാണ് പക്ഷേ കൃഷിയിൽ നമുക്ക് വൈദ്യുതി ഉപയോഗിക്കുക അതായത് വൈദ്യുതി ഉല്പാദിപ്പിക്കുന്ന രീതികൾ അത് പലതരമാവാം ചിലപ്പോൾ നമുക്ക് കാറ്റിലൂടെ വിൻഡ് ടർബയിനുകളിലൂടെയും നമുക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ഒരു വലിയ സാധ്യത നമുക്ക് കൂടി വരുന്നുണ്ട് ഇന്നത്തെ ലോകത്ത് വലിയ വലിയ വലിയ വലിയ സ്ഥലങ്ങൾ ഉടമയായിട്ടുള്ള ആൾക്കാർ വിൻഡ് ടർബയിനുകൾ വച്ച് അതിൽ അതിലൂടെ വരുന്ന കാറ്റുകളിലൂടെ അവർ എന്താ അവർക്ക് വൈദ്യുതി ഉല്പാദിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലുപരി വെള്ളത്തിലൂടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി അവർക്ക് കൃഷിക്കാവശ്യമായ ജല ശേഖരണത്തിനുവേണ്ടി അതുപോലെ മോട്ടറിൻ്റെ പ്രവർത്തനത്തിനുവേണ്ടിയും ട്രാക്ടറിനുവേണ്ടി അതുപോലെതന്നെ അവർക്ക് മറ്റ് ആവശ്യമായ ലൈറ്റിനുവേണ്ടിയും അവരുടെ ഇത് ധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ലൈറ്റിനുവേണ്ടിയും അതിൻ്റെ പ്രവർത്തനത്തിനുവേണ്ടിയും ഒക്കെ അവർ ഇതുപോലെ വൈദ്യുതി ഉപയോഗിക്കുന്ന വളരെയധികമാണ് കൃഷിയിൽ വൈദ്യുതി ഉപയോഗിപ്പിക്കേണ്ട കാര്യം ഇന്ന് ഈ ലോകത്ത് വളരെ കൂടുതലാണ് കാരണം ഇപ്പം വൈദ്യുതി ഉപയോഗിച്ചേ നമ്മുടെ ജീവിതം മുന്നോട്ടു പോവൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ കൃഷിയിൽ വൈദ്യുതിയുടെ സഹായം നമുക്ക് കൂടിയേ തീരൂ